കളികളിലൂടെ കുട്ടികൾക്ക് അവരുടെ കായിക വാസനകളെ വളർത്തി എടുക്കുക അവരുടെ ആരോഗ്യസ്ഥിതിയെ നന്നായി വളർത്തി എടുക്കുക കായിക ക്ഷമത നന്നാക്കി എടുക്കുക എന്നത് സാധ്യമാകുന്ന കാര്യമാണ് വിവിധ തരം കളികൾ സ്കൂൾ തലം മുതൽ നടപ്പിലാക്കി അതിലൂടെ സബ്ജില്ല ജില്ല തല മത്സരങ്ങളിലൂടെയൊക്കെ പങ്കെടുപ്പിച്ച് അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ വളർത്തി ഷ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അവരുടെ മനസിനെ മാറ്റി എടുക്കുവാൻ വിവിധ തരം കളികൾ സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് അതുകൊണ്ടു തന്നെയാണ് കൂടുതലായും എൽ പി സ്കൂളു മുതൽ ഹൈ യൂ പി സ്കൂളു മുതൽ ഹൈ സ്കൂളു മുതൽ എല്ലാ സ്കൂൾ തലങ്ങളിലും വിവിധ തരം കായികമത്സരങ്ങൾ നടപ്പിലാക്കുകയും അതിൻ്റെ കായിക കളികൾ നടപ്പിലാക്കി അതിൻ്റെ മത്സരങ്ങൾ നടപ്പിലാക്കുകയും അതിന് അനുസൃതമായി ട്രോഫികളും മറ്റും നൽകി കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ കായിക ആയ കഴിവിനെ വളർത്തി സമൂഹത്തിൽ ഉണ്ടാകുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഈ കളികൾക്ക് സാധിക്കും എന്നുള്ളത് വളരെ യാഥാർഥ്യ ബോധത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്